ഹലോ ഇത് ഇവന്റ് മാനേജ്മെൻ്റ അല്ലേ എൻ്റെ മകളുടെ വിവാഹ നിശ്ചയം ഉണ്ടായിരുന്നേ അതിന് നിങ്ങളുടെ ഇവൻറ്റ് പാക്കേജ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വിളിച്ചതാണ് ഒരു മുന്നൂർ മുന്നൂറാളുകള് പങ്കെടുക്കുന്ന നാശ് നിശ്ചയമാണ്

ആ ശരി ആ കേക്ക് മതി ആ കേക്ക് സദ്യയാണ് ഉദ്ദേശിക്കുന്നത് ജനുവരി പത്തിനാണ് വിവാഹ നിശ്ചയം ആ അതെ ശരി

ഞാൻ അഡ്വാൻസായിട്ട് നിങ്ങൾക്കെന്താണ് തുക വേണ്ടി വരിക

ആ അത് നമ്മൾ ഓഫിസിലേക്ക് കൊണ്ട് തരാം ശരി നമ്മൾ ഓഫീസില് വരാം ഞാൻ കഴിഞ്ഞ മാസം നിങ്ങളുടെ ഒരു ഫങ്ഷന് പങ്കെടുത്തിരുന്നു ആ ആ നിങ്ങൾ ഫുഡ്ഡും ഡെക്കറേഷനുവെല്ലാം ഇഷ്ടമായിട്ട് ഞാൻ വിളിക്കുകയാണ് ശരി ഞാന് ഓഫീസില് വരാം ആ ജനുവരി പത്തിന് ആ ശരി